ഹലോ ഇത് അബിയേട്ടനല്ലേ ചേട്ട മറ്റേ ഈ വണ്ടിയൊക്കെ കൊണ്ടൊന്നെ മറ്റേ ഇതെടുക്കുന്നത് ഈ പാക്കേജ് ഒക്കെ എടുക്കുന്നത് ഇപ്പോഴ് നമുക്ക് വയനാട്ടിൽനിന്ന് ഇങ്ങനെ ഈ മൂന്നാർ വരെ ഒരു ട്രിപ്പ് പോകണമായിരുന്നു കുറെ ചെക്കന്മാരൊക്കെ വരുന്നുണ്ട് ഒരു ഏഴ് പേരുണ്ടാകുമെങ്കിലും നമുക്കൊരു ഇന്നോവ ഒക്കെ പോകാൻ എത്ര ബഡ്ജറ്റ് ആകും ആ ആ ആണോ അതെത്ര വരും ഏതാണ്ട്

ഓക്കെ ഓക്കെ ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ മൂന്നാ അപ്പോൾ പതിനഞ്ച് ഉറുപ്പിയയിൽ നമുക്ക് മൂന്നാർ ജെസ്റ്റ് എറണാകുളം ഒക്കെ ഒന്ന് പോയി തിരിച്ചു എറണാകുളത്തേക്ക് പോകാൻ പറ്റുമോ എറണാകുളം വട്ടവട ആ ഭാഗത്തേക്ക് അല്ലെങ്കിൽ എറണാകുളം അല്ലെങ്കിൽ വട്ടവട ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റി വരാൻ പറ്റുമോ ഇടുക്കിയൊന്ന് ഫുള്ള് കറങ്ങി ആ ഓക്കെ ഓക്കെ പറ്റും അല്ലേ ഒരു അപ്പോൾ നമുക്ക് ഏഴ് പേരിൽ കൂടുതൽ ഉണ്ടെങ്കിലോ

ആണോ അതും ഇങ്ങനെ തന്നെയാ സെയിം ഇതുതന്നെയാ വരുന്നത് പാക്കേജിൽ ഇതുതന്നെയാണ് വരുന്നത് രണ്ട് ടൈപ്പ് ഓക്കെ ഓക്കെ അതു കുറച്ച് അതാവുമ്പോൾ റേയ്റ്റ് കുറച്ച് കൂടും അല്ലേ ട്രാവലറ് ആകുമ്പോൾ ഓക്കെ ഓക്കെ ഏഴ് പേരാകുമ്പോൾ ഇന്നോവേലോ ടവേരേലോ ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ ഓക്കെ അപ്പം ഞാനത് നോക്കിയിട്ട് ഒന്നുംകൂടെ വിളിക്കാം കൺഫോമ് ആക്കിയിട്ട് ഓക്കെ ഓക്കെ ആ നമുക്ക് നമുക്ക് ലാഭം കുറച്ചുകൂടെ ലാഭം വരുക എന്ന് പറയുമ്പോൾ ഡ്രൈവറെ റെൻറ്റ് ഒന്ന് ആ രീതിയായിരിക്കും അല്ലേ ഫ്യുവെൽ നമ്മൾ അടിച്ചിട്ട് ഓക്കെ മറ്റേതാവുമ്പോൾ ആ ഒരു ഇതിൽ ആ ഒരു കണക്കിൽ പാക്കേജ് ആയിട്ട് പോകേണ്ടിവരും അല്ലേ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ ഞാൻ എന്നാൽ ചില ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒന്നുകൂടെ വിളിക്കാം ചേട്ടനെ വിളിക്കാം ഓക്കെ ഓക്കെ ശരി ഏട്ടായി